എയർലൈൻ കസ്റ്റമർ സർവീസല്ലേ

കേൾക്കാമോ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്

അപ്പം ഞാൻ ആകെ ടെൻഷനിലാണ് ആകെ അവസ്ഥയായിട്ടാണ് ഞാൻ വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി ഇരുന്നത് ആ ഞാൻ ഫുൾ ഫു അവസ്ഥയാണ് ഫുൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ എ എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് തരാൻ പറ്റുമോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നിട്ട് അപ്പോൾ ഞാൻ ആണെങ്കിൽ ആകെ വീട്ടിലും നാട്ടിലും ഒന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ വിദേശത്തേക്ക് പോകാമെന്ന് വിചാരിച്ചത് ആകെ അവസ്ഥയാണ് ഇനി അത് പോയി തിരിച്ചെടുത്തിട്ട് വരാമെന്ന് വെച്ചാൽ അതും രക്ഷയില്ല ഇത്രയും ഫണ്ട് ഒന്നും എടുക്കാൻ ഉണ്ടാകില്ല ക്യാഷും കുറവാണ് എന്തെങ്കിലും ഒന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എടുത്ത് അത് ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ അത് എടുക്കാൻ മറന്നു പോയി ഇനി തിരിച്ച് പോയി എടുക്കുമ്പോഴത്തേക്കും ഫ്ലൈറ്റും പോകും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റുമോ